എൻ്റെ ഫസ്റ്റ് പ്രോഡക്റ്റെന്നു പറഞ്ഞ് കഴിഞ്ഞാൽ ഹെയർ ജൽ ആണ് ഹെയർ ജല്ലിനെ കുറിച്ച് പറയാനാണെങ്കിൽ നമുക്ക് ഇപ്പോൾ മുടി നല്ല ഇപ്പോൾ നമ്മൾ ഒതുക്കിവെച്ചിരിക്കുന്ന എങ്ങനെ ആണോ അതേപോലെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഹെയർ ജല്ലിൻ്റെ യൂസ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അപ്പോൾ പലതരം ഹെയർ ജല്ലും കാര്യങ്ങളൊക്കെയുണ്ട് ഇപ്പോൾ വാക്സ് അങ്ങനത്തെ എന്താണ് പറയുക നമുക്ക് ഷൈൻ ആയിട്ട് നിൽക്കുന്ന ഹെയർ ജല്ലും ഉണ്ട് അല്ലാത്ത നമുക്ക് വെച്ചതു പോലെ നിൽക്കുന്ന ഹെയർ ജല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഏത് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻവേണ്ടി സാധിക്കും കുഴപ്പമില്ല നല്ല ഒരു പ്രോഡക്റ്റാണ് കാരണമെന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചില സമയങ്ങളിലൊന്നും നമ്മുടെ മുടി ഈറി കഴിഞ്ഞാൽ ചിലപ്പോൾ ആ ടൈമിൽ തന്നെ നീൽക്കണമെന്നൊന്നുമില്ല അപ്പോൾ ഈ ഹെയർ ജല്ലൊക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണോ വെക്കാൻ ഉദ്ദേശിച്ചത് അത്പോലെ വെച്ച് വെക്കാൻവേണ്ടി സാധിക്കുന്നതാണ് വലിയ കുഴപ്പമൊന്നുമില്ലാത്ത പ്രോഡക്റ്റാണ് അപ്പോൾ പലതരം എന്താപറയുക പലതരം പ്രോഡക്റ്റ്കളുണ്ട് വാക്ക്സ് അങ്ങനെ കുറേയുണ്ട് അപ്പം നമുക്ക് ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം നമ്മളെ ഇതനുസരിച്ചു നമ്മളുടെ മുടിക്ക് ഏതാണോ നല്ലത് അതിനനുസരിച്ച് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ് കുഴപ്പമില്ലാത്തൊരു പ്രോഡക്റ്റാണ്